ഹലോ ബ്രോക്കർ റോയിയാണോ ആ എനിക്ക് എനിക്ക് പിന്നെ ഒരു ഫോൺ നമ്പര് കിട്ടിയാതാണ് ഒരാൾ വഴി കിട്ടീതാണ് ഫോൺ നമ്പരേ ഓക്കെ എനിക്കറിയേണ്ട എനിക്ക് എൻ്റെ വീട് കൈനഗരീലാണ് അപ്പോൾ എനിക്ക് ഇവിടത്തെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും ഈ വെള്ളപ്പൊക്കം പ്രശ്നങ്ങളും കാരണം ഞാൻ ഇവിടുന്ന് സ്ഥലം മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ആലപ്പുഴയിലേക്ക് മാറാനാണ് അഗ്രഹം അപ്പോൾ എനിക്ക് പിന്നെ അവിടെ നല്ല സ്ഥലങ്ങൾ വല്ലോ ഇപ്പം അവൈലബിളാണോന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്

ആ എനിക്കിപ്പോൾ വേണ്ടത് നിങ്ങൾക്ക് കുറച്ച് കൂടെ ബീച്ച് സൈഡിൽ ഒരു കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനുപയോഗിക്കാനും ബീച്ചിലോട്ടൊക്കെ പോവാൻ വേണ്ടിയുള്ള സ്ഥലാണ് നമുക്കൊരു ഒരു പോയി പത്ത് സെൻറ്റ് വല്ലതും മതി ആ ഓക്കെ നമുക്ക് ആ ഇപ്പോൾ അവിടൊരു സെൻ ഓക്കെ ഓക്കെ ആ അതെ അതെ അതെ ആ ഓക്കെ എനിക്ക് ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ

എനിക്ക് ഇവിടുന്ന് ഇവിടുന്നൊന്ന് മാറണമെന്ന് ഉള്ളൂ എനിക്ക് എൻ്റെ പ്രിഫെറെൻസ്ന്ന് പറയുന്നത് നല്ല വെള്ളം കിട്ടണം പിന്നെ കുറച്ച് നമ്മുടെ ഈ നമ്മുടെ കൈനിരി പോലുള്ള എൻ്റെ നാട്ടിലെ പോലുള്ള കുറച്ച് ശാന്തമായിട്ടുള്ളൊരു സ്ഥലം വേണമെന്നുള്ളൂ അതാണ് പിന്നെ ഞാൻ ബീച്ച് സൈഡ് പിടിച്ച് ഇല്ലേലും കുഴപ്പമില്ല അപ്പോൾ ഈ ബീച്ചാവുമ്പോഴത്തേക്ക് തിനഞ്ച് പതിനഞ്ച് ലക്ഷം രൂപൊക്കെയാവും അല്ലേ

ആ ഓക്കെ ഓക്കെ ആ അ ആ അപ്പോൾ എനിക്ക് അറിയേണ്ടത് അവിടെ അവിടെ ഈ കഴിഞ്ഞ മഴ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അവിടെ വെള്ളം പ്രശ്നം ഉണ്ടായിരുന്നോ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അപ്പോൾ അവിടുത്തെ സ്ഥലത്തിൽ സെൻറ്റ് സ്ഥലം സെൻറ്റിന് എത്രയാന്നാ പറയുന്നത് അഞ്ച് ലക്ഷം അഞ്ചിനക്കെ കിട്ടുമോ ആ ഓക്കെ ഓക്കെ ആ അതിന് എന്തായാലും കാറ് കയറുന്ന കാറ് കയറുന്ന വഴി എങ്ങാനുമുള്ള വീട് ആ സ്ഥലമാണെങ്കിൽ നല്ലതായിരിക്കും ആ ഓക്കെ എന്നാൽ നമുക്ക് നമുക്ക് ഉടനെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെയുണ്ടോ ഉടനെ ഉടനെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയാം ആ സ്ഥലത്തിൻ്റെ കാര്യം സംസാരിച്ചിട്ട് പറഞ്ഞേക്കാം ഓക്കെ താങ്ക് യൂ താങ്ക് യൂ